കായിക മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതനുസരിച്ച് സർക്കാർ കൂടുതൽ പണം ചിലവഴിക്കണമെന്നാണ് എൻറെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ സർക്കാർ കായിക താരങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകുന്നില്ല കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ അവർ ഫണ്ട് അനുവദിക്കാത്തതും കണ്ടുവരുന്നു ഇത്തരത്തിൽ ചെയ്യുന്നത് കായിക താരങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെ ആണ് അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയാതെ വരുകയാണ് ചെയ്യുന്നത് കായിക മത്സരങ്ങളിൽ പങ്കെടുക്കണമെങ്കിൽ കായിക താരങ്ങൾക്ക് അതിൻറേതായ സജ്ജീകരണങ്ങൾ ചെയ്ത് കൊടുക്കണം അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വീഴ്ച വരുത്തുകയാണ് അങ്ങനെയാണ് കണ്ട് വരുന്നത് ഇത് ചെയ്യാതെ വന്നാൽ അവർക്ക് മത്സരിക്കാൻ കഴിയാതെ വരും എനിക്ക് ഇന്ത്യയിലെ കായിക മേഘല മെച്ചപ്പെടുത്താൻ ഒരവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ എൻറേതായ രീതിയിൽ കായികതാരങ്ങൾക്ക് വേണ്ട അത്യാവശ്യ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ പ്രാദേശിക തരത്തിൽ കായിക ടൂർണമെൻറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും ഇതുവഴി വളർന്ന് വരുന്ന കായിക പ്രതിഭകൾക്ക് അതൊരു അവസരമാവുകയും അവരുടെ ആ ഒരു കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരെയും ഒരു അവസരവും കിട്ടുകയാണ് ചെയ്യുന്നത്